വിദ്യാത്ഥികൾക്ക് ഉന്നത പഠനത്തിനായി മറ്റ് എവിടെ സ്ഥലത്ത് പോകേണ്ട ആവശ്യമുണ്ട് ഇവിടെ കുട്ടികൾക്ക് പ്രിഡിഗ്രി അല്ലെങ്കിൽ അത്യാവശ്യം പ്ലസ് ടു അല്ലെങ്കിൽ ഡിഗ്രി പഠിച്ചു കഴിയുമ്പോൾ അവർക്ക് പിന്നെ പഠന സാധ്യതൽകൾ മുട്ടിപ്പോകുന്ന ഒരു അവസ്ഥയാണ് എന്തെങ്കിലും പഠിച്ചാൽ തന്നെ ഒരു ജോലി കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നില്ല അതുകൊണ്ട് ഇപ്പോഴത്തെ യുവജനങ്ങൾ മുഴുവനും വേറെ സ്ഥലങ്ങളിലേക്ക് യുകെയും പിന്നെ അങ്ങനെ അയർലൻഡ് അങ്ങനെയുള്ള വിദേശ രാജ്യങ്ങളിലേക്ക് പോകാനാണ് കുട്ടികൾ താല്പര്യപ്പെടുന്നത് പ്ലസ് ടു കഴിഞ്ഞു പോയി വിദേശത്ത് പോയി ഹയർ സ്റ്റഡീസ് നടത്തുമ്പോൾ അവിടെ തന്നെ എന്തെങ്കിലുമൊക്കെ പണി കിട്ടും അത്യാവശ്യം അവർക്ക് അവിടെ പിന്നെ എക്സ്പീരിയൻസൊക്ക എടുത്ത് കഴിയുമ്പം പെട്ടെന്ന് ജോലി കിട്ടാനായിട്ട് സാധ്യതയുണ്ട് നമ്മുടെ ഇന്ത്യയിലെ ജോലി സാധ്യതകൾ ഇപ്പം കേരളത്തിലും ഇന്ത്യയിലുമൊക്കെ വളരെ കുറഞ്ഞു വരുന്നുണ്ട് കുട്ടികൾ പേരൻറ്റ്സാണെങ്കിലും ഇപ്പം കുട്ടികളെ പഠിപ്പിക്കുന്നത് തന്നെ പുറത്തേക്ക് വിടാനുള്ള ഒരു ട്രെൻഡിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരു എല്ലാവർക്കും താല്പര്യം വിദേശരാജ്യം തന്നെയാണ് കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യേലോ ഒന്നും ജോലി ചെയ്താൽ അവർക്ക് ഒരു സാലറി കൊണ്ട് ഒരു തൃപ്തരാവൂന്നില്ല പിന്നെ ദൂരേക്ക് പോവുമ്പം അവർക്ക് പഠിച്ചിട്ട് സൗ പഠനത്തിനൊത്ത് ശമ്പളം കിട്ടുന്നു അങ്ങനെ വരുന്നു പിന്നെ അവരുടെ കൾച്ചറ് തന്നെ മെച്ചപ്പെടും പോകുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഇവിടെയും ഭൂപ്രകൃതി അനുസരിച്ചു നമ്മൾ ഇവിടെ താമസിക്കുമ്പം ഒത്തിരി ചെളിയും മണ്ണും അങ്ങനെ ഒത്തിരി ദുരിതങ്ങൾ നമുക്ക് അനുഭവിക്കേണ്ടി വരുന്നുണ്ട് കേരളത്തിൽ ഇന്ത്യയിലൊക്കെ ജീവിക്കുന്ന ആൾക്കാർക്ക് വിദേശ രാജ്യത്തേകൊക്കെ പോയി കഴിയുമ്പോൾ അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുന്നു സ സമ്പന്നത ഉണ്ടാകുന്നു അവരുടെ കൾച്ചറ് മാറുന്നു പിന്നെ നമുക്ക് അവർക്ക് നല്ല ഒരു നല്ല ഒരു അന്തരീക്ഷത്തിലേക്ക് അവർ മാറുന്നത് കൊണ്ടാണ് പോരൻറ്റ്സ് കുട്ടികളെ വിദേശത്തേക്ക് വിടാനായിട്ട് താല്പര്യപ്പെടുന്നത് മിക്ക കുട്ടികളും വിദേശത്ത് പോയി പഠിച്ചു ജോലി വാങ്ങി അവിടെ സെറ്റിലായി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു പോരാൻ പോരും താല്പര്യമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് വരുന്നു അത്ര മാത്രം ജീവിത നിലവാരം മെച്ചപ്പെടാനായിട്ട് സാധിക്കുന്നുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്